ജോലിസലത്ത് അഭിമുഖീകരിച്ച ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ മുമ്പ് കോഴിക്കോടൊരു മിൽക്ക് അതായത് പാലിന്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലത്തോളം ഒന്ന് ഒന്നര കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് കയറി ഒരു രണ്ടുമൂന്നു മാസം അക്കൗണ്ട് സെക്ഷൻ ആയിരുന്നു വർക്ക് മെയിനായിട്ട് അവിടെ രണ്ട് മൂന്ന് ഷിഫ്റ്റ് ആയിരുന്നു മൊത്തം രാവിലെ നൈറ്റ് മോണിംഗ് മിഡ് അങ്ങനെ ഉച്ചയ്ക്കുള്ള മൂന്ന് ഷിഫ്റ്റ് അതിലെനിക്ക് അധികവും നൈറ്റ് ഷിഫ്റ്റ് ആണ് മെയിനായിട്ട് വരാറ് കാരണം ഞാൻ ബാച്ചിലറും പിന്നെ അവിടെത്തന്നെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസവും കമ്പനി ഹോസ്റ്റലിൽ അത്യാവശ്യമിതുണ്ട് അപ്പോൾ അവിടെ തന്നെയായിരുന്നു താമസം അപ്പോൾ മെയിനായിട്ട് അധികവും നൈറ്റ് തന്യ വരാറ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലോഡ് ഫുൾ ടൈം പകലായാലും രാത്രിയായാലും ലോഡ് വരലും പോക്കൊക്കെ ഉണ്ടായിരുന്നു ലോങ്ങ് റൂട്ടുകളധികം നൈറ്റാണ് പോകാറ് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഷോട്ട് റൂട്ടും കാര്യങ്ങളും ലോഡ് വരുന്നത് നൈറ്റായിരിക്കും അപ്പോൾ വർക്ക് കൂടുതൽ തന്നെയായിരുന്നു അതുപോലെ ഇപ്പോൾ വർക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രയാണ് പാല് ഏതൊക്കെ ടൈപ്പ് ഐറ്റം പാല് അത് വന്നിട്ടുണ്ട് അത് എത്രയെത്ര എമൗണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ സ്റ്റോക്ക് വിവരങ്ങൾ അതുപോലെ അതിൻ്റെ കൊണ്ടുവരുന്ന ബോക്സ് കാര്യങ്ങൾ അതിൻ്റെ സ്റ്റോക്ക് എടുക്കണം പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് പീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എവിടേക്കാണ് പോയത് ഇപ്പോൾ ലോങ്ങ് റൂട്ട് പോകുന്നതാണെങ്കിലും അവിടെ എത്ര ഐറ്റം പോയിട്ടുണ്ട് ഏതൊക്കെ ഐറ്റമാണ് പോയത് എത്രയെത്ര ലിറ്റർ വെച്ചിട്ട് പോയിട്ടുണ്ട് ഏത് എങ്ങനെയാണ് പോയിരിക്കുന്നത് ഇപ്പോൾ അവിടെ ബോക്സിലാണോ അതോ കവറിലാണോ സെപ്പറേറ്റ് ലൂസായിട്ട് അവരുടെ വലിയ നമ്മുടെ ഈ ഐസ് ക്രീം ബോക്സ് പോലത്തെ ബോക്സിലാണോ എങ്ങനെയാണ് പോയിരിക്കുന്നത് അതൊക്കെ എല്ലാ ലിസ്റ്റും അവിടെ നിന്ന് ഇപ്പോളൊരു മൊട്ടുസൂചി പുറത്തു പോവുകയാണെ കൂടി അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാകണം കൃത്യമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വന്ന് മൂന്നാല് മാസം കഴിഞ്ഞ് ഒരു തിരക്ക് അതായത് നമുക്കീ ഓണം വിഷു ആ സീസണൊക്കെ അതായത് നല്ല സീസൺ തിരക്കുള്ള സമയമായിരിക്കും വിഷുവിൻ്റെ തലേദിവസം രണ്ടുദിവസം മുമ്പ് പതിനഞ്ചാന്തിയാണ് വിഷുവെങ്കിൽ അതിന് രണ്ടുദിവസം മുമ്പ് ഒരു പതിമൂന്നാം തീയതിക്കൊക്കെ നല്ല ഓർഡറായിരിക്കും അപ്പോൾ ആ സമയത്ത് വന്നിട്ട് പത്താന്തി പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടാന്തി വന്നിട്ട് അവിടുത്തെ നമ്മുടെ സിസ്റ്റം ജാമായി നമ്മുടെ സോഫ്റ്റ് വെയർ എററായി അപ്പോൾ കണക്കും കാര്യങ്ങളൊന്നും നമുക്ക് അതിൽനിന്ന് എടുക്കാൻ പറ്റാതെയായി റേറ്റും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എന്താ പറയുക ആകെയൊരു സ്റ്റക്കായ അവസ്ഥയായിരുന്നു നമ്മുടെ മെയിൻ ലോഡ് വന്ന് നമ്മുടെ കമ്പനിക്ക് ലോഡെത്തി അതിറക്കാനും പറ്റുന്നില്ല പുതിയ ലോഡ് കയറ്റാനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണം നമ്മളിറക്കണമെങ്കിൽ നമ്മുടെ അവർ തന്ന പേപ്പർ അവിടെ നിന്ന് കയറ്റി വിട്ടതിൻ്റെ പേപ്പർ നമുക്ക് സൈറ്റിൽ ഉണ്ടാകും ആ സൈറ്റിൽ എടുത്ത് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കമ്പനി ലോഡ് ഇറക്കാൻ അതുകഴിഞ്ഞ് നമുക്ക് പോകണമെങ്കിൽ ഈ സാധനത്തിൻ്റെ ബില്ലടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടെ പോകാൻ പറ്റുകയുള്ളൂ ജി എസ് റ്റി ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് രീതിയിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടെ വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ബില്ലടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ പേപ്പർ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റാതെയായി പിന്നെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊസസ്സാണ് വീണ്ടും ചെയ്തത് മാനുവലായിട്ട് കൃത്യമായിട്ടെല്ലാ ബില്ലുകളും എഴുതി എല്ലാ ബില്ലും എല്ലാ കോഡും ഓരോ ബില്ലും സപ്പറേറ്റ് സപ്പറേറ്റ് എഴുതി ഉണ്ടാക്കി അതിൻ്റെ പുറത്തുകൊണ്ടുപോയി പ്രിൻ്റെടുത്ത് പുറത്ത് അതായത് വേറൊരു ലാപ്പ് കൊണ്ടുവന്ന് അതിലേക്ക് സോഫ്റ്റ് വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കമ്പനിക്ക് ഒരു പ്രത്യേക സോഫ്റ്റ് വെയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സോഫ്റ്റ് വെയർ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ അതിൻ്റെ പ്രിൻറ് എടുക്കാൻ വേണ്ടി പുറത്തുപോയി അങ്ങനെ കുറച്ച് സമയം അതായത് ലോഡ് പോകേണ്ടത് എട്ടുമണിക്കാണ് എട്ടുമണിക്ക് പോകേണ്ട വണ്ടി പോയത് പത്തുമണി പത്തര കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലോഡ് പോയത് അത്രയും ടൈം ഗ്യാപ്പ് വന്നു എന്താ മെയിനായിട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലെടുക്കുന്നതു തന്നെയായിരുന്നു പ്രശ്നം പിന്നെ എല്ലാവരും കൂടി അന്ന് സ്റ്റാഫുകളെ പുറത്തു നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ടൈം വേസ്റ്റ് ചെയ്യാതെ അതായത് ലോഡ് കയറ്റാൻ പറ്റാത്ത എല്ലാവരും ടൈം വേസ്റ്റ് ആയിട്ട് അവർ കുറച്ചാൾക്കാർ പോയി പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ നമ്മുടെ കമ്പനി സ്റ്റാഫുകളെല്ലാവരും ഇപ്പോൾ അക്കൗണ്ട് സെക്ഷനായാലും എല്ലാ സെക്ഷനിലും ക്ലീനിങ് സെക്ഷനിലുള്ള ചേച്ചിമാരും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണെന്ന് ആ വർക്ക് നമുക്ക് കറക്റ്റ് സമയത്തിന് കറക്റ്റ് സമയത്തല്ല ഒരു പത്തരക്കെങ്കിലും നമ്മുടെ ലോഡ് വിടാൻ പറ്റിയത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുദിവസം കഴിയുമ്പോഴേക്കും റെഡിയായി അപ്പോൾ പിന്നെ വീണ്ടും പഴയ ബില്ലൊക്കെ വീണ്ടും ജി എസ് റ്റി ബിൽ ആക്കി നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണത് നമ്മൾ അവർക്ക് പെയ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് അയച്ചുകൊടുത്തത് കസ്റ്റമേഴ്സിന്